എൻ്റെ ഓർമ്മയിലുള്ള വളരെ രസകരമായൊരു കഥ എന്ന് പറയുന്നത് എൻ്റെ വല്യപ്പച്ഛനും ഞാനുമായിട്ടുള്ള ഒരു കഥയാണ് എൻ്റെ വല്യപ്പച്ഛനൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ നല്ല നല്ല സോപ്പുകളുടെ സോപ്പ് മേടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കവർ സൂക്ഷിച്ച് വെക്കുന്നൊരു പരിപാടി അത് വല്യപ്പച്ഛനിങ്ങനെ ശേഖരിച്ച് വെച്ച് എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഒന്ന് വല്യപ്പച്ഛനെന്തെങ്കിലും സൂക്ഷിച്ച് വെക്കുമ്പോൾ ഞാൻ ചോദിക്കുവായിരുന്നു ഇത് എന്തിന് വേണ്ടി സൂക്ഷിച്ച് വെക്കുന്നു അന്നേരം പറയും ഓരോത്തർക്കും ഓരോരോ ഹോബികളില്ലേ അങ്ങനെ ഒന്നാണ് എൻ്റെ ഈ ഹോബിയെന്ന് വല്യപ്പച്ഛനങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് കണ്ട് കണ്ട് കണ്ട് ഞാനും എൻ്റെ എനിക്ക് മേടിക്കുന്ന സോപ്പിൻ്റെ കവറുകളൊക്കെ സൂക്ഷിച്ചു വെക്കുവായിരുന്നു എനിക്കൊരു മകനാകുന്ന വരെ അതിന്ശേഷം മകനായപ്പോൾ എൻ്റെ സോപ്പുകൾ പെട്ടികളിലും എൻ്റെ സോപ്പിൻ്റെ കവറുകളൊക്കെ അവനെടുത്ത് കളയുകയും അവനതുകൊണ്ട് കൊട്ടാരവും വീടും ഒക്കെ ഉണ്ടാക്കി നശിപ്പിക്കുക ഒക്കെ ചെയ്തതിന് ശേഷം ഞാനെൻ്റെ സോപ്പ് പെട്ടികളോ സോപ്പിൻ്റെ കവറുകളോ എടുത്ത് സൂക്ഷിച്ച് വെക്കാറില്ല എൻ്റെ ഒരുപക്ഷെ എൻ്റെ വല്യപ്പനോട് ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ വല്യപ്പൻ വളരെ ചിരിച്ച് വളരെ സന്തോഷത്തോടെ ഇതൊക്കെ ചുമ്മാ ഒരു തമാശയാണ് കുട്ടി എന്നെന്നോട് പറയാറുണ്ടായിരുന്നു ആ തമാശ ഞാനും ഏറ്റെടുത്തിരുന്നു എനിക്കൊരു മകൻ ഉണ്ടാകുന്നിടം വരെ ഇപ്പോൾ തമാശകളൊന്നും എൻ്റെ ജീവിതത്തിലില്ല കാരണം അതൊക്കെ ഇന്ന് തമാശകളൊക്കെ എടുത്തെറിയാൻ എനിക്ക് നല്ല നല്ല കുറുമ്പുള്ള ഒരു ചെറുക്കൻ കുഞ്ഞാവ ഉണ്ട് അതുകൊണ്ട് ഇപ്പം സോപ്പ്പെട്ടി ശേഖരമൊന്നും എൻ്റെ കയ്യിലില്ല